ഹലോ ഹലോ ഇത് ഓട്ടോ ഡ്രൈവർ വിഷ്ണു അല്ലേ അതെ ഇത് ഞാൻ കാസർഗോഡ്ന്നാണ് വിളിക്കുന്നത് ഒന്ന് ഞാനും പിന്നെ ഒരുത്തനും ഉണ്ട് രണ്ട് പേർക്കും ചക്രപാണി ടെംബിൾ ഒന്ന് വിസിറ്റ് ചെയ്യാണമായിരുന്നു ആ അത് രാവിലെയാണ് അതിൻ്റെ അവിടെ പ്രസാദം ഒക്കെ കൊടുക്കാറ് അപ്പം രാവിലെ പുലർച്ച എട്ടു മണിക്ക് മുമ്പ് ആയിട്ട് എത്തണം അവിടെ നമ്മൾ എത്ര അവിടെ എത്തുന്ന പോലെ എട്ടു മണിക്ക് മുമ്പായി എത്തുന്നപോലെ പോണമെങ്കിൽ എത്ര മണിക്ക് വിടേണ്ടി വരും ഇവുടുന്ന് ഏകദേശം എത്ര ദൂരം ഇവിടുന്ന്

ഒ ഓക്കേ ഓക്കേ ഓക്കേ ഓക്കേ എത്ര ദൂരയാണ് അറിയോ അത് ഓക്കേ ഓക്കേ രണ്ട് മണിക്കൂറൊക്കെ വേണ്ടി വരും അല്ലേ ഓക്കേ ഓക്കേ അ ഓക്കേ ആ അ ഓക്കേ അപ്പം ഞങ്ങൾ എവിടെ റെഡിയായി നിൽക്കണം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിൽക്കണോ അല്ല പഴയ ബസ് സ്റ്റാൻഡ് നമ്മളുടെ വീട് പുതിയ ബസ് സ്റ്റാൻഡിന് അടുത്താണ് ഓക്കേ ഓക്കേ ആ അതിന് ഫീസ് ചാർജ് എത്രയാവും നിങ്ങളുടെ ഓട്ടോ ചാർജ് ഓക്കേ ഓക്കേ എയിറ്റ് ഹൺഡ്രഡ് അല്ലേ ഓക്കെ ആ ഇത് തിരിച്ച് വരാനും പോവാനും എല്ലതും ചേർന്നിട്ടല്ലേ എയിറ്റ് ഹൺഡ്രഡ് ഓക്കേ ഓക്കേ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാവോ ഉച്ച ഭക്ഷണം അറിയോ നിങ്ങൾക്ക് ചക്രപാണി ടെംബിളിൽ വഴിപാട് എടുക്കേണ്ടി വരുല്ലേ ഓക്കേ ഓക്കേ ആ ഓക്കേ ആ അതെടുത്ത ഭക്ഷണം കഴിച്ച് വരാല്ലേ അപ്പോൾ നിങ്ങൾടെ വെയ്റ്റിംഗ് ചാർജ് എത്ര ഉച്ച വരെ ആവുമ്പോൾ അത്രേള്ളോ ഉച്ച വരെ ഓക്കേ ഒന്നിച്ച് അപ്പം എത്ര പോവാനും വരാനും വെയ്റ്റിംഗ് ചാർജ് ഒക്കെ കൂട്ടിട്ട് ആ ഓക്കേ അ അ ഏകദേശം നയൺ ഹൺഡ്രഡ് അല്ലേ ഓക്കേ രണ്ട് പേർക്ക് ഓക്കെ ഓക്കെ അപ്പോൾ അഞ്ചെ മുക്കാൽ അഞ്ച്രേര ഉള്ളിൽ റെഡിയായി നിന്നാൽ മതിയല്ലേ കാസർഗോടിലപ്പോൾ ഓക്കേ ഓക്കേ ശരി ശരി ശരി ചേട്ടാ ശരി ഓക്കേ ശരി